ഹലോ ഗ്രീൻഹിൽസ് പബ്ലിക് സ്ക്കൂൾ ആരാണ് സംസാരിക്കുന്നത് ഓക്കെ മാം എത്ര ഒരു എത്ര കുട്ടീനെ ആണ് ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രാം ക്ലാസ്സിലേക്കാണ് ഓക്കെ മാം ഇവിടെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോണെഷൻ ഇരുപത്തയ്യായിരം രൂപ ഡൊണേഷൻ കെട്ടണം ഒരു കുട്ടിക്ക് ഫീ പതിനായിരമേ വരുന്നുള്ളു അപ്പം നമ്മൾ ഡൊണേഷൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ട് കുട്ടികൾക്ക് ഞാൻ ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞത് രണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പം പിന്നെ രണ്ട് കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം ഡൊണേഷൻ ഫീ നമ്മൾ വരുന്നത് ഒരാൾക്ക് പതിനായിരം രൂപ എൽ കെ ജിയിൽ യു കെ ജിയിൽ പതിനഞ്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് പോലെ അടയ്ക്കാം ഒറ്റയടിക്ക് അടക്കാം എന്ന് ഇല്ലെങ്കിൽ പിന്നെ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് പേ ചെയ്യാം ഒരു ഓണത്തിന് ക്രിസ്മസിന് പിന്നെ ആനുവൽ എക്സാമിന് മുമ്പ് അങ്ങനെ കമ്പ്ലീറ്റ് ആക്കിയാൽ മതി പിന്നെ ബുക്കിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം ബുക്കിന് ഓരോ ക്ലാസ്സിനനുസരിച്ച് ബുക്കിന് നമ്മൾ എക്സ്ട്രായാണ് വാങ്ങുന്നത് അത് ഓരോ ക്ലാസ്സിനനുസരിച്ച് ഇപ്പോൾ എൽ കെ ജിയുടെ ബുക്കിന് എത്രയാണോ അത്രയും വരില്ല അത്രയും കൂടുതലായിരിക്കും രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് വരിക അത് ബുക്കിൻ്റെ ഇതിനനുസരിച്ചാണ് വരിക എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ ബുക്കായിരിക്കില്ലല്ലോ യു പീൻ്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരിക അങ്ങനെയാണ് ഓക്കെ അപ്പം മാം എന്നാണ് കുട്ടിയിനേയും കൊണ്ടുവരുന്നത് ആ അതെയോ അപ്പം ഇവിടെ ഇപ്പം ഡൊണേഷൻ എത്രയാണ് വരുന്നത് പിന്നെ ഫീ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ബസ്സ് ചാർജ് എക്സ്ട്രാ വരും അത് ഏതാണ് സ്ഥലം അങ്ങനെ വച്ചിട്ടാണ് നോക്കുന്നത് എത്രയാണ് എവിടെയാണ് വീട് നിങ്ങളുടെ വീട് എവിടെയാണ് വരുന്നത് ഓക്കെ അപ്പം പിന്നെ അത് ബസ്സ് ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നത് ആയിരിക്കും നല്ലത്

അപ്പോൾ നിങ്ങൾ പിന്നെ മാം എന്നാണ് വരുന്നതെന്ന് വച്ചാൽ ഈ അടുത്ത ദിവസം വരികയാണെങ്കിൽ നമുക്ക് അതിനെ അല്ലാതെ സംസാരിക്കാം ഇങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ ഓക്കെ താങ്ക് യൂ